ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ സർക്കാർ പലതരം ഇന്നവേഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ഉള്ള എക്സാംപിൾ ആണ് സർവ്വശിക്ഷാ അഭ്യാൻ മിഡ് ഡെയ്സ് മീൽ സ്കീം രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭ്യാൻ നാഷണൽ പ്രോഗ്രാം ഓഫ് എജ്യൂക്കേഷൻ ഫോർ ഗേസ് അറ്റ് എലമെൻ്ററി ലെവൽ കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയ ഈ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ ഗവൺമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പിന്നെ അതായത് ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് നിലവിൽ കൊണ്ട് വന്ന സംരംഭങ്ങളാണ് ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ചില കുട്ടികളെ സ്കൂളിൽ വിടാത്തതിൻ്റെ കാരണങ്ങളുണ്ട് അതായത് ഈ ഇപ്പോൾ ഗവൺമെൻറ്റ് പല തരത്തിലുള്ള സംരംഭങ്ങൾ ഇന്ട്രഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടാ നുള്ള എത്തിപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ അത് പ്രമോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള ചില സംരംഭങ്ങളുണ്ട് അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെ കുറിച്ച് പലർക്കും അറിയില്ല അതുകൊണ്ടായിരിക്കാം ഇവർ തൻ്റെ കുട്ടികളെ അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാത്തത് അതുപോലെ തന്നെ അവർക്ക് സർക്കാർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് അതായത് ഒരാളുടെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടു പോവുമ്പോൾ പല തരത്തിലുള്ള ചിലവുകളുണ്ട് അപ്പോൾ ഒരു സാമ്പത്തിക ശേഷി പിന്നോട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് ഇപ്പോൾ ഒരു കുടുംബത്തിലെ രണ്ടും മൂന്നും കുട്ടികൾ വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ചിലവുകളുണ്ട് അപ്പം ഈ ഗവൺമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളും അതൊക്കെ ഈ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്ത എത്തുന്നതിനുള്ള ചുറ്റുപാട് സാഹചര്യം കുറവാണ് അപ്പോൾ അതിനുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഈ ഗ്രാമീണ മേഖലയിൽ കുട്ടികൾ സ്കൂളിൽ എത്താത്തത് അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ഒരു വിദ്യാഭ്യാസം ഉള്ളവനെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറാണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം തൻ്റെ കുടുംബത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നന്നായി ജീവിക്കണം അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ഒരു സക്സസ്സ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരണം ഇന്ന ഏതെങ്കിലും നല്ല ഒരു നിലയിൽ എത്തിച്ചേരണം അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്താനും അങ്ങനെ സ് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ അവരുടെ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് ആ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ കുടുംബത്തിലെ കുട്ടികളെ നല്ലൊരു രീതിയിലേക്ക് വളർത്താനും അവരെ വിദ്യഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാരൻറ്റ്സിനെ പറ്റത്തുള്ളൂ അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും ഈ ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ കുട്ടികൾ ഇപ്പം സാമ്പത്തിക ശേഷി തന്നെയാണ് മെയിൻ കാരണമായിട്ട് വരുന്നത് അതേപോലെ ഈ സാമ്പത്തിക ശേ ശേഷി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് അതേപോലെ അവർക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടാകുക അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവാം ഇപ്പം ഒരു കുടുംബത്തിൽ പെൺകുട്ടി ഇന്ന ക്ലാസ്സിനു മുകളിൽ പഠിക്കുന്നത് ഇതാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്ല്യാണ ഒരു പ്രായം കഴിഞ്ഞാൽ കല്ല്യാണം കഴിച്ചയപ്പിക്കേണ്ടതാണ് പെൺകുട്ടികൾ അടുക്കളയിൽ തളച്ചിടേണ്ടവരാണ് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസ് ആ തെറ്റായ ചിന്താ രീതികളായിരിക്കാം ചിലരെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആ അതിനുള്ള കുറവായിട്ട് വരുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്ലാസ്സും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വിദ്യാഭ്യാസത്തിന് വഹിക്കുന്ന പങ്കും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ഒരു നല്ലൊരു ജോലി നേടാനും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാനും സമൂഹത്തിൽ ഒരു നല്ല വില ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയാൽ തന്നെ ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്നും അങ്ങനെയുള്ള പഠിപ്പ് മാത്രമല്ല സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല പൗരനായി തീരണമെന്നുള്ള കാഴ്ചപ്പാട് നൽകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ചില ഇപ്പോൾ പല തരം തൊഴിൽ മാർഗ്ഗങ്ങളും നമ്മളെ തേടി എത്തുന്നത് നമ്മുടെ മാർക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കഴിവിലൂടെ തന്നെയാണ് അതിൽ വിദ്യാഭ്യാസം വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പ ഗ്രാമീണ മേഖലയിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല പദ്ധതികൾ കൊണ്ടുവരാൻ ഇണ്ടത് അനിവാര്യമാണ് അതായത് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്ലാസ്സ് നടത്തുക അതേപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ വിദ്യ അവരുടെ വിദ്യാഭ്യാസം പിന്തുടരാത്തത്തിനു കാരണം ഒന്ന് ചിലപ്പോൾ അവരുടെ സ്കൂളുകൾ വളരെ അധികം ദൂരെ ആയിരിക്കാം അവിടേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരെ പിൻ തള്ളപ്പെടുത്തുന്നുണ്ട് അവരുടെ സാമ്പത്തികശേഷി അനുസരിച്ച് അവർക്ക് ദൂരത്തിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഗവൺമെൻറ്റിന് സൈക്കിൾ സൗജന്യ സൈക്കിൾ വിതരണം അങ്ങനെയുള്ള പദ്ധതികൾ നൽകാവുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്കൂളോ അല്ലെങ്കിലൊരു അവരുടെ പഠിപ്പിനെ വിദ്യാഭ്യാസത്തെ നല്ല നിലയിലേക്കെത്തുന്നതിനായുള്ള ഒരു കോച്ചിങ് സ്ഥാപനങ്ങളോ അങ്ങനെ അവരുടെ ഗ്രാമത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്യുക അപ്പം അങ്ങനെ ആവുമ്പോൾ ഇവരുടെ പോയി വരാനുള്ള ദൂരം അങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരമാവുന്നതാണ്